ഹലോ ഹാലോ പറയു അതെ അതെ പച്ചക്കറിക്കടയാണ് എന്താ മോനേ ഇവിടെ ഫ്രഷായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് വെണ്ടക്ക ഉണ്ട് വഴുതിനിങ്ങ ഉണ്ട് പടവളങ്ങാ ഉണ്ട് വെള്ളിരിക്ക ഉണ്ട് തക്കാളി ഉണ്ട് അതു പോലെ തന്നെ ചേന ഫ്രഷ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ തക്കാളിക്ക് ഇന്നത്തെ വില ഇരുപത്തി അഞ്ച് രൂപയാണ് കിലോയ്ക്ക് അത്പോലെ തന്നെ വെള്ളരിക്കയ്ക്ക് നാൽപ്പത് രൂപ അതുപോലെ തന്നെ വഴുതിനങ്ങ ഇരുപത്തി എട്ട് രൂപ അതുപോലെ പിടിപ്പയർ അമ്പത് രൂപ കിലോ അതുപോലെ കോവക്ക മുപ്പത്തി എട്ട് രൂപ

പിന്നെ ഉണ്ട് ഹോം ഹോം ഡെലിവറികൾ ചെയ്യുന്നുണ്ടല്ലോ സ്ഥലവും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കണം വരുന്ന പയ്യൻ എന്തെങ്കിലും ഒരു വണ്ടിക്കൂലി എന്നല്ല പെട്രോള് ചാർജെന്ന രീതീയിൽ ചെറിയ ഒരു എമൗണ്ട് ഈ ബില്ലിലൂടെ നമ്മൾ ആഡ് ചെയ്യും ഇല്ലെങ്കിൽ സാധനം ഇവിടെ എത്തിക്കാൻ പറ്റത്തില്ലല്ലോ ഉണ്ട് അതുകൂടെ ഇതിനകത്ത് ഇൻക്ലൂട് ആണ് ഇത് സ്ഥലം കൈനഗിരി കോലത്ത് ജെട്ടിയുടെ ഭാഗത്തായിട്ട് വരും

അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ അത്രയും കൂടുതൽ ആയാലും ആയിരം പേരുടെ സദ്യക്കൊക്ക നമ്മൾ കൊടുക്കാറുണ്ട് നിലവിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച്ച തന്ന ഒരു ആയിരത്തി ഇരുനൂറ് പേരുടെ സദ്യയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പം അതൊക്ക നമ്മൾ നമ്മുടെ വണ്ടിയിൽ വാഹനത്തിൽ അവിടെ എത്തിച്ച് തരും അങ്ങനെയുള്ളതാണ് ഡോർ ഡെലിവറി ഡോർ ഡെലിവറി സിസ്റ്റം നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് തലേദിവസം തന്നെ തലേദിവസം തന്നെ ഉച്ചകഴിഞ്ഞു സാധനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തരാം പറഞ്ഞാൽ മതി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഓരോ വീടുകളിൽ പോയി ചെറിയ കുടിൽ വ്യവസായക്കാരായ അവരുടെ കൈയ്യിൽ നിന്ന് വീട് വീടുകളിൽ പോയി അവടെ നിന്ന് കളെക്റ്റ് ചെ യ്താണ് ഈ ഒർജിനൽ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ കളെക്റ്റ് ചെയ്താണ് എത്തിക്കുന്നത് ഗൂഗ്ൾ പേ ഒക്കെ ഉണ്ട് ക്യാഷ് ഗൂഗിൾ പ്പേ ഉണ്ട്

അവർ ലിസ്റ്റുമായിട്ട് വരാൻ പറ ആ അപ്പോൾ ഞാൻ അത് ലിസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ കൈയ്യിലുള്ള സാധനങ്ങൾ ഇപ്പോൾ ഉടനെ നിലവിൽ ഉടനെ തരാം പോരാത്തത് എന്താണെന്നു വച്ചാൽ ചിലപ്പോൾ രണ്ട് മണിക്കൂർ ഡിലേ ആവും നമ്മൾ എവിടെ പോയി വാങ്ങിച്ചു എടുത്തു കൊണ്ട് കളെക്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വരുന്നതായ സമയമുണ്ട് ആ ഒരു സാവകാശം വേണ്ടി വരും ഓക്കെ താങ്ക് യു താങ്ക് യു